ഞാൻ വിളിക്കുന്നത് നിങ്ങൾ ഈ വീടൊക്കെ വയറിംഗ് ചെയ്ത് കൊടുക്കുന്ന അല്ലേ ഇലക്ട്രീഷനല്ലേ ആ സാറിന്റെ പേരെന്തായിരുന്നു ബിനിത്ത് അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ വര്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മൊത്തത്തിൽ ഒരു വീട് ഫുള്ളായിട്ടെടുക്കുവാണോ

ആണല്ലേ ഇപ്പം എനിക്ക് നിങ്ങൾ ഇപ്പം അത് ഫുള്ളായിട്ട് ചെയ്ത് തരണമായിരുന്നു അപ്പം എന്റെ വീടിന്റെ വാക്കി മെയിന്റെനന്സ് പണികളും സര്വ്വ സംഭവങ്ങൾ എല്ലാം ഓള്റെഡി കഴിഞ്ഞ് കഴിയാറായി അപ്പം കഴിയാറായപ്പം തന്നെ ഞാൻ ഇത് വിളിച്ച് സെറ്റ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള്ക്ക് ഇത് കഴിഞ്ഞിട്ട് പെട്ടന്ന് വീട് കയറി താമസിക്കാൻ ഉള്ളതായിരുന്നു അങ്ങനെ ഇത് കൊണ്ടാണ് നിങ്ങൾ എളുപ്പം വന്ന് വര്ക്ക്കൾ ചെയ്ത് കൊടുക്കും എന്നിങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഞാന് അറിഞ്ഞു അപ്പം നിങ്ങൾ ഇത് അട്വിന്റെ അത് അങ്ങനെ അറിവ് ലഭിച്ചതിന് പ്രകാരമാണ് നിങ്ങളെ തന്നെ ഞാന് വിളിക്കുന്നത് അപ്പം നിങ്ങളുടെ റേറ്റ് നിങ്ങളുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ആയിരത്തഞ്ഞൂറ് സ്കൊയര് ഫീറ്ററോ ഉം എല് ഈ ഡി ലാമ്പെക്കെ വേണം ഇപ്പോഴത്തെ മോഡലായിട്ടീ ഫ്രണ്ടിലെക്കെ ഒരുപാട് ചുറ്റിനും വേണം എല് ഈ ഡി ലാമ്പ് ഫ്രണ്ടിൽ മാത്രം പോരാ ചുറ്റിലും വേണം ആ ഭിത്തിയേക്കൂടെല്ലാം വേണം ഉം പിന്നെ ഫാനെങ്ങനെത്തെ ഈ നാല് തൊണ്ടി ഉള്ള ഫാനൊണ്ടല്ലോ ഉം സീലിംഗ് ഫാനായിട്ടാണ് സീലിംഗ് ഫാനയിട്ടാണ് ഉപയോഗിക്കുന്നത് രണ്ട് ഹാളൊണ്ട് രണ്ട് ഹാളൊണ്ട് പിന്നെ ബെഡ്റൂമ് താഴെ മൂന്ന് നാല് ബെഡ്റൂമൊണ്ട് അങ്ങനെയുള്ള നാല് ബെഡ്റൂമിനും ഉണ്ട് രണ്ട് നില വീടാണല്ലോ ഉം മേളിലും ഉണ്ട് ഹാള് മേളിലും ഉണ്ട് ഹാള് അവിടേം ഉണ്ട് മൂന്ന് മുറികൾ ഉണ്ട് അപ്പം അവിടെ എല്ലാം പിടിപ്പിക്കണം പിന്നെ സ്വിച്ച് ബോര്ഡെന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഈ ബെഡിനോടു ബെഡിന്റവിടെത്തന്നെ സ്വിച്ച് ബോര്ഡ് പിടിപ്പിക്കണം നമുക്ക് അപ്പം അതെല്ലോ അതെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ആം പിന്നെ എല്ലാ മുറിയിലും തന്നെ ഈ സീലിങ്ങിൽ വേണം ബള്ബ് സീലിങ്ങിൽ വേണം പിടിപ്പിക്കാനായിട്ട്

പിന്നെ ഒരുപാട് നല്ല ഒരുപാട് നല്ല വിലക്കൂടിയ സംഭവങ്ങൾ തന്നെ വേണം ഞങ്ങൾക്ക് ചെയ്ത് തരാനായിട്ട് ആ അപ്പം ഞങ്ങൾ സാധനങ്ങൾ വാങ്ങി തരുകേല നിങ്ങൾ തന്നെ സാധനങ്ങൾ കൊണ്ട് വന്ന് നമ്മൾ ബില്ല് പേ ചെയ്ത് തരത്തെ തരുവേ ഉള്ളു ആ അപ്പം നിങ്ങൾ തന്നെ വേണം സാധനങ്ങൾ ഒക്കെ കൊണ്ട് വന്ന് സെറ്റ് ചെയ്ത് തരാനായിട്ട് ആം അപ്പം അതിന്റെ ടോട്ടല് തുക എത്ര വരുമെന്ന് ഒന്ന് പറയുമോ എന്നിട്ട് വേണേൽ ബങ്കിപ്പോയി ചെക്കെഴ്തിന് ചെക്കെഴുതാനായിട്ട് ചെക്കെഴുതി തരാം അത് നിങ്ങളുടെ കയ്യിൽ ചെക്കെഴുതിത്തന്നാൽ നി മതിയല്ലോ നിങ്ങൾ തുക പറഞ്ഞിട്ടേ ആം അപ്പം അങ്ങനെ വരുമ്പം മൊത്തത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്കൊയര് ഫീറ്ററ് സ്കൊയര് ഫീറ്റ് ഉം

അഞ്ച് ലക്ഷം രൂപയ്ക്കല്ലേ അഞ്ച് ലക്ഷം ഇത്തിരി കൂടുതലാണോ ഡിസ്ക്കൗണ്ട് ചെയ്ത് തരുമോ ആ ഡിസ്ക്കൗണ്ട് കുറച്ചൊക്കെ ഡിസ്ക്കൗണ്ട് ചെയ്ത് തരണേ അപ്പം നമുക്കും മൊ ആ ആ നിങ്ങൾക്ക് എത്ര വര്ക്കൊണ്ട് വര്ക്ക്കാരൊണ്ട് കീഴിൽ ആണോ അപ്പം അങ്ങനെ നമുക്ക് നല്ല മോഡേണായിട്ടുള്ള രീതിയിലങ്ങനെ ഒക്കെ ചെയ്ത് തരണം കേട്ടോ അപ്പം ഓക്കെ